സ്പോർട്ട്സിലൊക്കെ കളിക്കുന്ന കൂടുതലും കളിക്കാർ ചെയ്യുന്നത് എന്താണെന്നു വച്ചാൽ സ്റ്റാമിനയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചക്ഷനും കുത്തി വയ്ക്കലും മരുന്ന് കുടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കുടിച്ച് കഴിയും അതെപോലെത്തന്നെ ഭാവിയിൽ കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട് അതു കാരണം പിന്നെ അത് വച്ചു കഴിഞ്ഞാൽ ആ ടൈമുകളിലൊക്കെ നല്ലതാണ് കുത്തുന്ന സമയത്തൊക്കെ നല്ലതാണ് പെട്ടന്ന് സ്റ്റാമിന കിട്ടാനും വേഗത്തിലോടാനുമൊക്കെ ഇതാവും ക്ഷീണം തോന്നില്ല പിന്നെ അതെപോലെത്തന്നെയാണ് അവർക്ക് പിന്നെ രോഗവും ഉണ്ടാവും അതുപോലെ കുറച്ച് ബ്ലഡിൽ ബ്ലോക്കൊക്കെയാവും അത് കുത്തി വച്ചിട്ട് ഓടിയില്ലെങ്കിൽ ബ്ലഡിൽ ബ്ലോക്കൊക്കെയാവും അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ അതുപോലെതന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം മീഡിയക്കാർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും എന്താണെന്നു വച്ചാൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കൂടുതൽപ്പേര് നമ്മളെപ്പോലെ ഉള്ളത് ഇംഗ്ലീഷൊന്നും വായിക്കാനറിയാത്തവർക്ക് പിന്നെ ഇംഗ്ലീഷ് മീഡിയമൊന്നും ചേരാൻ പറ്റില്ല പിന്നെ നമ്മൾ മലയാളം മീഡിയത്തിൽ കുറവായിരിക്കും ഇംഗ്ലീഷ് മീഡിയമാണ് കൂടുതലും നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നും കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയമാണ് നല്ലത് പഠിക്കാൻ പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് മലയാളമല്ലെ പറ്റുളളു